എൻ്റെ പ്രദേശത്ത് കുറ്റകൃത്യങ്ങൾ തീർച്ചയായും നടക്കാറുണ്ട് അപ്പോൾ ഈ കേരളത്തിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം നടന്ന ഒരു സംഭവമാണ് ഒരു അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്താൻ കഴിയാതെ അതിനെ കിണറ്റിൽ എറിഞ്ഞു കൊല്ലുക എന്ന ഒരു സംഭവമുണ്ടായി അപ്പം അതിൻ്റെ കാരണം എന്നു നോക്കുമ്പോൾ ഒരു പക്ഷേ ദാരിദ്ര്യമായിരിക്കാം ആ അമ്മയോട് ഈ പോലീസുകാര് എന്തുകൊണ്ടാണ് ഈ കാര്യം ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് കുട്ടിനെ വളർത്താനുള്ള ഒരു സംവിധാനം അവർക്കില്ല അതുകൊണ്ട് അവര് ദാരിദ്ര്യം അവർക്ക് ഒരു ദാരിദ്ര്യം കാരണം അവർക്ക് വളർത്താനില്ലാത്ത ഒരു കഴിവും വളർത്താൻ പറ്റില്ല എന്നൊരു കാരണം പറഞ്ഞിട്ടാണ് ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞത് എന്ന് പറയുന്നുണ്ട് അപ്പോ ദാരിദ്ര്യം ഒരു നമ്മുടെ കുറ്റകൃത്യങ്ങൾക്ക് ദാരിദ്ര്യം ഒരു കാരണമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും വേണമെങ്കിൽ എന്നല്ല ആ ഒരു ദാരിദ്ര്യം ഉണ്ട് എന്നൊരു കാരണം നമുക്ക് പറയാൻ പറ്റും പിന്നെ തൊഴിലില്ലായ്മ ഒന്ന് കാര്യം ഒന്ന് ആ കുട്ടിയുടെ അമ്മയ്ക്ക് ഒരു തൊഴിലും ഇല്ലായിരുന്നു അത് തൊഴിലില്ലായ്മയുടെ മെയിൻ കാരണം പ്രധാനമായ കാരണം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ കുവ് തന്നെയാണ് അപ്പം വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ് തൊഴിൽ ഇല്ലാതിരിക്കുന്നത് തൊഴിൽ ഇല്ലാത്തത് കൊണ്ട് ഇത്ര കുട്ടിനെ നല്ല രീതിയിൽ നോക്കാൻ ആ അമ്മയ്ക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് ആ കുട്ടിയെ കൊല്ലേണ്ടി വന്നു അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് വേണമെങ്കി ൽ ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് പറയാം തൊഴിലില്ലായ്മ കാരണം ദാരിദ്ര്യം ഉണ്ടാകുന്നു ദാരിദ്ര്യം കാരണം ആ കുഞ്ഞിനെ കൊല്ലേണ്ടി വരുന്നു അതൊരു കുറ്റകൃത്യത്തിലേക്ക് അമ്മയേ നയിക്കുകയാണ് ചെയ്യുന്നത് അപ്പം തീർച്ചയായിട്ടും ഇത് തമ്മിലൊരു ഒരു ഒരു ബന്ധമുണ്ട് അപ്പ ആ ഒരു ബന്ധം നമുക്ക് ഈ ഒരു കേസിലൂടെ നമുക്ക് അറിയാൻ പറ്റും മാത്രമല്ല നമുക്ക് വളരെ അറിയാവുന്ന ഒരു കഥയാണ് മധുവിൻ്റെത് മധു ദാരിദ്ര്യം കാരണം കുറ്റം ചെയ്ത ഒരാളാണ് കാരണം അയാൾക്ക് വിശപ്പടക്കാൻ പറ്റാതെ അയാൾ കുറച്ച് അരി മോഷ്ടിക്കുകയാണ് ഉണ്ടായത് ആ മോഷണത്തിൻ്റെ പേരിലാണ് ആ അയാളെ അദ്ദേഹത്തെ ആൾക്കാർ തല്ലി കൊല്ലുന്ന ഒരു സന്ദർഭം ഉണ്ടായി ആ അവിടെയും ദാരിദ്ര്യമാണ് അദ്ദേഹത്തിനെ അരി മോഷ്ടിക്കുക എന്ന കുറ്റകൃത്യത്തിലേക്ക് നയിച്ചത് പക്ഷേ ആ ആ ഒരു കാരണം മനസ്സിലാക്കാതെ അവിടെയുള്ള ആൾക്കാർ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് അത് മോഷ്ടിച്ചതെന്ന് പോലും മനസിലാക്കാതെ അദ്ദേഹത്തെ കൊല്ലുകയാണ് ഉണ്ടായത് അത് നമ്മൾ എപ്പോഴും ഒരു വ്യക്തി കുറ്റം ചെയ്യുമ്പോൾ അയാൾ അവരുടെ പിന്നിലുള്ള ആ കുറ്റം ചെയ്യുന്നതിൻ്റെ കാരണം മനസ്സിലാക്കാതെ എന്തുകൊണ്ടാണ് ആ വ്യക്തി കുറ്റം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാതെ അതിൻ്റെ പിന്നിൽ അയാൾ ഒരു കാര്യവും നോക്കാതെ അത് അയാളെ ഉപദ്രവിക്കാൻ പോകുന്നതാണ് ഏറ്റവും വലിയ കുറ്റം എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടു തന്നെ ഇതൊക്കെ ഇത് നമ്മുടെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യം തന്നെയാണ്